ഹലോ ആടി നമിതെ ഞാനെ ഒര് കാര്യം അറിയാൻ വേണ്ടീട്ട് വിളിക്കുവായിരുന്നെ ടീ എനിക്കാണെങ്കിൽ കുറെ നാളായിട്ട് ഇപ്പോൾ കണ്ണിന് ഭയങ്കര ഇറിറ്റേഷനും ഭയങ്കര ചൊറിച്ചില് കണ്ണിന് വേദന അങ്ങനെ ഒക്കെയാണ് അപ്പം ഞാനാണെങ്കില് ഒര് ആയുർവേദ ഹോസ്പിറ്റല് അന്വേഷിക്ക ആയിരുന്നെ അപ്പം നിനക്ക് വല്ലതും പരിചയം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചത് ആയിരുന്നു ആ ടി പക്ഷെ എനിക്ക് കോട്ടയത്ത് തന്നെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും

അ ഓ അതെ അതെ ആടി ആടി

ആണല്ലേ ആ അപ്പോൾ അവിടെ സർവീസൊക്കെ നല്ലതാണോ നീ പോയിട്ട് നിനക്ക് അറിയാവോ പരിചയമുണ്ടോ പോയിട്ടുണ്ടോ അതെ അല്ലെ ആ അറിയാം ഓക്കെ ഓക്കെ അവിടെ അപ്പൊ ഒരുപാട് പൈസയൊക്കെ ആവുവോ ഇതിന് ചെക്കപ്പിനും കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെ ആടി അത് മതി അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് വരണ്ടി വരും കേട്ടോ നീ ഫ്രീ ആകുമ്പോൾ ഞാൻ പ പറഞ്ഞാൽ മതി അപ്പോൾ നമക്കൊന്ന് പോകാം അവിടെ ആ ഓക്കെ ഓക്കെ അപ്പോൾ ശെരിയെടി എങ്കിൽ ആ ശരി ഓക്കെ